എൻ്റെ ഒരൂ അഭിപ്രായം വച്ച് പറയുകയണെങ്കിൽ നൃർത്തങ്ങളുടടെ പാട്ട് സെലക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ഇപ്പം നാടോടി നൃത്തം ഒപ്പന അങ്ങനെയുള്ള കുറേ കലാരൂപങ്ങൾക്ക് അതിനായിട്ടുള്ള തനിമ രീതിക്കുള്ള പാട്ട് അതിന് കൊടുക്കമ്പറ്റുവുള്ളു ഇപ്പോൾ ഒപ്പനക്ക് ഒരു ഒരു തീമുണ്ട് ഒപ്പന എന്ന് പറഞ്ഞാൽ മുസ്ലിം ബേയ്സിലാണ് പോകുന്നത് അപ്പം ഒരു മണവാട്ടിക്ക് മണവാട്ടി ആകുമ്പോൾ ആ രീതിക്കുള്ള ആ മണവാട്ടിനെ സന്തോഷിപ്പിക്കുക എന്നുള്ള രീതിക്കുള്ള പാട്ടാണ് വേണ്ടത് അല്ലാതെ ടെപ്പാങ്കൂത്ത് പാട്ട് അങ്ങനെ പാട്ടൊന്നും ഈ ഒപ്പനക്ക് കഴിഞ്ഞാൽ ആ ഒരു കലാരൂപത്തെ പൂർണമായിട്ടു നമുക്ക് കാണാമ്പറ്റൂല ഒരു കലാരൂപത്തെ പൂർണമായിട്ട് കാണുന്നൊരു മേയ്ൻ ഘടകമാണ് പാട്ട് എന്ന ഒരു ഇത് പാട്ടിലൂടെയാണ് ആ കലാരൂപം നമുക്ക് ജനങ്ങളിലേക്ക് ആ കലാരൂപത്തെ തീം എത്തിക്കാൻ പറ്റത്തൊള്ളു അപ്പം അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് പാട്ട് എന്നു പറയുമ്പോൾ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ അധികം ശ്രദ്ധിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ നാടോടി നൃത്തത്തിന് നമുക്ക് ഒരിക്കലും സിനിമാറ്റിക് പാട്ടായിട്ട് കൊടുക്കാൻ പറ്റില്ല അത് ഒരു സ്റ്റോറി അത് ജനങ്ങൾക്ക് എത്തിക്കണം ജനങ്ങൾക്കെ എത്തിക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ ആക്റ്റിങ് ഒന്നാമത്തെ ഒരു ഘടകം വരിക അവിടെ ആക്റ്റിങ്ങാണ് രണ്ടാമത്തെ ഒരു ഘടകം വരുന്നത്

പിന്നേ എൻ്റെ പേർസ്ണൽ ആയിട്ടുള്ള അഭിപ്രായം പറയുമ്പോൾ ഇങ്ങനെ പാട്ട് തിരഞ്ഞെടുക്കാൻ നമുക്ക് നല്ല കൺഫ്യൂഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം ഇത് അറിയുന്ന ഒരു ആൾക്കാരെ നമ്മൾ സമീപിക്കുക ആണെന്നുണ്ടെങ്കിൽ അപ്പം അവർക്ക് അറിയുന്ന രീതിക്ക് ചെയ്യാം അല്ലാതെ നമ്മൾ ആയിട്ട് പാട്ട് സെലക്റ്റ് ചെയ്യുമ്പോൾ അതിന് കുറേ ഫോൾട്ട് വരാൻ ചാൻസ് ഉണ്ട് അപ്പം കലാരൂപങ്ങൾ അറിയുന്ന ആര് അരങ്ങേറ്റം കഴിഞ്ഞ മോഹിനിയാട്ടത്തിന് അരങ്ങേറ്റം കഴിഞ്ഞ ഒരു ഒരു സാറിനെ ക്കൊണ്ടോയ് സമീപിക്കുക ആണെന്നുണ്ടെങ്കിൽ സാറ് ആ കലാരൂപത്തിന് വേണ്ട തീം ആ കലാരൂപത്തിന് അങ്ങനെ വേണ്ട പാട്ട് എന്നുള്ള രീതിക്ക് അവർ പറഞ്ഞു തരും അല്ലാതെ നമ്മൾ സ്വയം ഒരു പാട്ട് തെരഞ്ഞെടിക്കുക ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ചരിത്രം അതിൻ്റെ ഒരു ചരിത്രം അറിഞ്ഞേ നമുക്ക് ചെയ്യാൻ പറ്റൂ അതാണ് എനിക്ക് എൻ്റെ പേർസണൽ ഒരു അഭിപ്രായത്തിൽ എനിക്ക് പറയാനുള്ളത്